അതേ ഇതാരാണ് ആണോ എലിസബത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് ഓ അത് നമുക്ക് പാഷനാണ് വേണ്ടത് എനിക്ക് സിനിമയോട് പണ്ട് തൊട്ടെ ഒടുക്കത്തെ പാഷനാണ് അപ്പം നമ്മുടെ പാഷന് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയാറാവുമല്ലോ അപ്പം അപ്പം അതാണ് എന്നെ സഹായിച്ചത് എന്റെ ഈ പഠിത്തവും സിനിമയുമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ അതെ തുടക്കത്തിൽ അവർ ഭയങ്കരം ഇതായിരുന്നു എന്നച്ച് നിനക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ പോരെ എന്തിനാണ് ഈ സിനിമ ഇങ്ങനെ കൂടെ പിടിക്കുന്നതെന്ന് പക്ഷെ എനിക്ക് എന്നെക്കൊണ്ട് ഇത് ചെയ്തു കാണിക്കാൻ പറ്റുമെന്ന് അവർക്ക് മനസിലായപ്പോൾ അവർ എന്നെ സഹായിക്കാൻ തുടങ്ങി ഉയ്യോ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ് എന്നെ ആദ്യമേ തൊട്ട് സഹായിച്ചത് ഈ ടീച്ചേഴ്സും പേരെൻസ്സും എന്നെ എന്നെ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയപ്പോൾ എന്റെ ഫ്രണ്ട്സാണ് എന്നെ സഹായിച്ചത് അവരാണ് എനിക്ക് കുറേ അവസരങ്ങൾ ഇങ്ങനെ നേടി തന്നത് ആ ഓക്കെ താങ്ക് യു ഉയ്യോ